ഇന്ത്യൻ സമൂഹത്തില് മതത്തിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ നല്ല പങ്കുണ്ട് മതത്തിന് ഒത്തിരി ഒത്തിരി മതങ്ങളുണ്ട് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹിക്കുകയെന്നുള്ളതാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക പിന്നെ ഓരോ മതത്തിലുമെല്ലാം അടിസ്ഥാനം ഒന്നാണെങ്കിലും മതത്തിൻ്റെയെല്ലാം മെയിൻ ഘടകം ഒന്നാണെങ്കിലും ഓരോരുത്തര് പല രീതിയിൽ പലയാൾക്കാര് പല മതത്തില് വിശ്വസിക്കുന്നു എല്ലാവരും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹിക്കുക ശത്രുതയൊക്കെ ഒഴിവാക്കി വഴക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നന്നായിട്ട് ജീവിക്കുക അതാണല്ലോ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരു മതം മറ്റൊരു മതത്തെ കുറ്റം പറയാതെയും ഒരുമയോടും സ്നേഹത്തോടും കൂടി കഴിയുക പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക ഒരു മതത്തിൻ്റെ ആൾക്കാര് അടുത്ത മതത്തിൻ്റെ ആൾക്കാരെ കുറ്റം പറയാതെയും അവരെ ദ്രോഹിക്കാതെയും പരസ്പരം സ്നേഹിക്കുക സ്നേഹിച്ച് മുന്നോട്ടുപോവുക ഒരുമയോടെ പോവുക എല്ലാ മതവും അതിൻ്റെ അടിസ്ഥാന കാതലായ കാര്യം ഒന്നുതന്നെയാണ് എല്ലാ മതത്തിൻ്റെയും ഓരോരുത്തർക്കും ഓരോ മതത്തിനോട് പ്രത്യേകം താല്പര്യവും വിശ്വാസവുമൊക്കെയുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു പിന്നെ മതം മനുഷ്യന് നല്ലതാണ് ദൈവഭയമുള്ളത് മനുഷ്യന് നല്ലതാണ് ഏത് മതത്തിലാണെങ്കിലും ഏത് ദൈവത്തിലാണെങ്കിലും മനുഷ്യന് ഒരു ദൈവഭയമെന്നുള്ളത് നല്ലതാണ് തെറ്റികളില് വീഴാതെ നന്നായിട്ട് നേര്വഴിക്ക് ജീവിക്കുവാൻ ഈ മതം കൊണ്ട് ഒത്തിരി നടക്കുന്നുണ്ട് ഒരു ദൈവഭയം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ ചെയ്യാതെയൊക്കെ പോകും അങ്ങനെ വരുമ്പോള് ശാന്തിയും സമാധാനവും ഐശ്വര്യവുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും അങ്ങനെ മനുഷ്യന് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും എല്ലാം പരസ്പരം സ്നേഹിക്കുക സ്നേഹമാണ് എല്ലാത്തിനും അടിസ്ഥാനം ഏത് മതമാണെങ്കിലും സ്നേഹം അതാണ് സ്നേഹം സഹായിക്കുക സ്നേഹിക്കുക ബഹുമാനിക്കുക ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക അങ്ങനെ മതം എന്തുകൊണ്ടും നല്ലതാണ് മതമില്ലെങ്കിൽ അങ്ങനെയൊരു ദൈവഭയമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അരാജകത്വമുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ആരെയും ഭയമില്ലാത്ത ഒരു സംവിധാനത്തിൽ ഒരു നിയമവാഴ്ചയെ മാത്രം ഭയമെന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ദൈവത്തിൽ ഭയമുണ്ടാകണം ഭയമുണ്ടെങ്കിലേ മനുഷ്യൻ സമാധാനത്തിൽ ജീവിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ മതത്തില് വിശ്വസിക്കണം ഏത് മതത്തിലാണെങ്കിലും കുഴപ്പമില്ല മതത്തില് വിശ്വസിക്കുക നമ്മള് എന്താണ് ദൈവഭയത്തില് ജീവിക്കുക ക്രിസ്ത്യൻസാണെങ്കിൽ പള്ളിയിലൊക്കെ പോവുകയും ഹിന്ദുക്കളാണെങ്കില് അമ്പലത്തില് പോവുകയും മുസ്ലിമാണെങ്കില് അവര് നിസ്കരിക്കുകയും അങ്ങനെ അങ്ങനെ അങ്ങനെ ഏത് മതത്തിലാണെങ്കിലും ആ മതത്തില്പ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അങ്ങനെ വന്നാല് ആ ജനങ്ങൾക്ക് അതുകൊണ്ട് അതിൻ്റേതായ ഒരു അഭിവൃദ്ധിയും ഗുണവും സമാധാനവുമൊക്കെ ഉണ്ടാവുകയുള്ളൂ